ഞാൻ വിളിച്ചതേ ഈ കഥകളി പഠിക്കാനൊക്കെ എത്ര ഫീസ് ആയിരിക്കും ഒരു മാസത്തേക്ക് ആയിരം അല്ലേ അപ്പം ഈ ഡ്രസ്സും കോ അതിൻറെ ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും അതെല്ലാം അവിടുന്ന് തന്നെ കിട്ടുമായിരിക്കുമോ

അപ്പം ഈ അപ്പം ഈ അടയാഭരണങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുമായിരിക്കുമല്ലോ അല്ലേ ഈ ഞാൻ ഒരു കാ ആ ഹാ ഹാ ഇപ്പം ഈ കുറേ പേരൊക്കെ ഇങ്ങനെ ഓർഡർ കൊടുക്കുമായിരിക്കും അല്ലേ അവിടെ ഇങ്ങനെ കഥകളിയുടെ ഒക്കെ ഡ്ര അപ്പം ഞാൻ എനിക്ക് എൻറെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട് അപ്പം കൂട്ടുകാരി കൂടെ ഇങ്ങനെ ഇതുപോലെ കഥകളി കളിക്കുന്ന ആളാണ് അപ്പം കൂട്ടുകാരിക്കും കൂടെ വേണമായിരുന്നു അപ്പം അതൊരു ബൾക്ക് ആയിട്ട് ഓർഡർ കൊടുത്താൽ പ ചെയ്താൽ പറ്റുമോ പിന്നെ ഞാൻ പിന്നെയാണെങ്കിൽ ഇപ്പം എന്തൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത് കാ ആ ഒരു ആ ഒരു വസ്ത്രത്തിൻ്റെ കൂടെ എന്തൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ആ

അതെ കാരണം എന്തുകൊണ്ടാണ് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം അടുത്ത അടുത്ത ആഴ്ചയൊക്കെ ആണെങ്കിലും അതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ ആണെങ്കിലും ഇപ്പം ഒരുപാട് പ്രോ ഇതൊക്കെ വേദിയിലൊക്കെ കയറേണ്ടതാണ് അപ്പം ഇത് ഇതും ഇട്ടുകൊണ്ടൊക്കെ കയറണം അപ്പം നമുക്ക് നമുക്ക് നേരത്തെ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഥകളി പഠിച്ച് അതുകൊണ്ട് കയറേണ്ടതുകൊണ്ട് അതിൻറേതായ രീതിക്കനുസരിച്ച് അതിൻറേതായ രീതിക്കനുസരിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാനാ ഒരു വസ്ത്രം അണിഞ്ഞു വേണമല്ലോ കയറാൻ വേണ്ടി അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതൊന്ന് തയ്പ്പിക്കുവാണെങ്കിൽ അതൊരു കേടുപാടു കൂടാതെ തയ്ക്കുവാണെങ്കിൽ വളരെ ന നല്ലതായിരുന്നേനെ കാരണം നമ്മളൊരു വേദിയിൽ നിൽക്കുമ്പം അതിൻറേതായ ഒരു തനിമയോടെ നിൽക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഞാൻ പ മ മറ്റന്നാൾ ആണെങ്കിലും മതി കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കൂട്ടുകാരിക്കും കൂടെ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഓക്കെ ഒരുപാട് നന്ദിയുണ്ടേ